മേ ഐ കം ഇൻ മാഡം അ അ മാഡം രണ്ട് ദിവസമായിട്ട് പനി ആയിരുന്നു

ആ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അ അത്യാവശ്യം ആയി ഇടയ്ക്കാണ് വരിക ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അങ്ങനെ ആണ് തലവേദന ഇല്ല ചെറുതായിട്ട് അ ജലദോഷം ചെറുതായിട്ട് ഉണ്ട് മേലുവേദന ഇല്ല തൊണ്ടവേദന ചെറുതായിട്ട് ഉണ്ട് ഇല്ല

ഓക്കെ

ഓക്കെ പിന്നെ ഇവിടുന്ന് തരുന്ന മെഡിസിൻ കഴിച്ച് എത്ര ദിവസം കഴിക്കേണ്ടിവരും

അ കുറഞ്ഞില്ലെങ്കിൽ വന്നേക്കാം ഞാൻ വേറൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ ഒക്കെ അ വരാം വരാം ഓക്കേ താങ്ക്യൂ